ചേട്ടാ നമസ്ക്കാരം പിന്നെ നമ്മുടെ വണ്ടി ചെറിയൊരു മിസ്സിംഗ് പോലെ അതൊന്നു കാണിക്കാൻ വന്നതാണ് അങ്ങനെയല്ല ഇപ്പൊൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ ഫുൾ ടാങ്ക് പെട്രോൾ കാര്യങ്ങളളോക്കെയുണ്ട് പക്ഷെയൊരു ഒരു പവർ കിട്ടുന്നില്ല വണ്ടിക്ക്

ആ പിന്നെ അതിൻ്റെ ആ ബോണറ്റൊന്നു തുറക്കാൻ പറ്റുമോ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ സൗണ്ട് വരുന്നുണ്ട് ഈ നമ്മുടെ ഗിയർ മാറുമ്പോൾ ഫ്രണ്ടിൽ നിന്നൊരു ഒരു കടകട എന്നൊരു സൗണ്ട് വരുക അതായതു നമ്മൾ ഗിയർ ഡൌൺചെയുന്ന സമയത്താണ് മെയിനായിട്ട് വരുന്നത്

കുടുതലായിട്ടു കേറ്റം കേറുന്ന സമയത്തു കേറ്റം കേറുന്ന സമയതാണ് നമ്മൾ ഗിയർ ടൗൺ ചെയുക ഗിയർ വീഴുന്നുണ്ട് പക്ഷെ സൗണ്ട് വരുവാണ് അതിനകത്തു നിന്ന് അതിനിയിപ്പോൾ കൂടുതൽ കംപ്ലയിന്റ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഇനിയെന്താ സംഭവം എന്നറിയില്ല ആ വീൽ അലൈൻമെന്റ് ഒന്ന് ചെക്ക് ചെയ്യണം ഓയിലും മാറ്ററായെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ നമുക്ക് ബ്രെക്കിൻ്റെയൊന്ന് ചെക്ക് ചെയ്യണം ഒന്ന് സർവീസ് ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര സമയമെടുക്കും അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ അതേല്ലേ ആ ഇപ്പൊൾ നമുക്ക് ഏകദേശം ഇപ്പൊൾ അതിൻ്റെ ഇത് എത്രയാണ് കോസ്റ്റ് എത്രയാണ് വരുന്നത് സർവീസ് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ വർക്ക് ഇല്ലാണ്ടു സർവീസിന് മാത്രം

ആ എന്നാലും നമുക്ക് ഏകദേശമൊരു ഇപ്പൊൾ നോക്കിയത് അനുസരിച്ച് ഇപ്പം ആ ഏകദേശം മറ്റേ സെലെക്റ്റായ ഇതിനു അതെല്ലേ എന്നാലും നമക്കൊരു പത്തുരൂപൻ്റെ ഉള്ളിൽ റെഡിയാക്കാൻ പറ്റുമോ ആ പിന്നെ നമ്മുക്കിതിൽ ശെരിക്കും എത്ര കൂടുമ്പോളാണ് സർവീസ് ചെയ്യണ്ടത് ആ നമ്മളിപ്പോൾ അത്യാവശ്യം റണ്ണിങ്ങാണ് വണ്ടി കുഴപ്പമില്ല അത്യാവശ്യം റണിങ്ങാണ് ആഴ്ച്ചേയിൽ ഒരു പത്തു അറുന്നൂർ അറുനൂറ്റിയന്പത് കിലോമീറ്റര് ഒക്കെ ഓടുന്നുണ്ട് നിങ്ങളുടെ സർവീസ് ഞായറാഴ്ച ഉണ്ടാകുമൊ എന്നാലേ നമുക്ക് എല്ലാ മാസവും നാലാമത്തെ ശനിയാഴ്ചയെ നിങ്ങള്ക്ക് വണ്ടി വന്ന് എടുത്തിട്ട് പോയിട്ട് സർവീസ് ചെയ്തിട്ട് വൈകുനേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച മോർണിംഗായിട്ടു എത്തിക്കാൻ പറ്റുമോ തിങ്കളാഴ്ച മോർണിംഗ് അല്ലേൽ സാറ്റർഡേ നൈറ്റ് എത്തിച്ചാലും ഉപകാരമായി ആ അപ്പോൾ എന്നാൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം അപ്പൊൾ എനിക്ക് എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയാഴ്ച നമ്മക്കതു ഫിക്സ് ചെയ്യാൻ പറ്റുക ഏതു ആഴ്ച്ചേലാണ് ഇടണ്ടത് രണ്ടാമത്തെ ശനി മൂന്നാമത്തെ ശനിയാഴ്ച ഇട്ടാലോ അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് അത് മാറ്റി നാലാമത്തേൽ ഇടാലോ നാലാമത്തെ ശനിയാഴ്ച ആക്കാലോ ആ ഓക്കേ എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഇന്ന് നാളെ ഇന്നിപ്പൊൾ ബുധൻ ഞാനെന്നാൽ ശനിയാഴ്ച ഇതേമാരിയൊന്നു വന്നു എടുക്കാൻ പറ്റുന്ന രീതിൽ ഈ ശനിയാഴ്ച എന്തേലും ആരേലുമൊന്നു വീട്ടിലേക്ക് വിട്ടാൽ മതി ഞാൻ അഡ്രസ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കാം എ ഒക്കെ ഒക്കെ ഓ താങ്ക്യൂ താങ്ക്യൂ